ഹലോ ഹലോ ഇത് ഗുഡ് മോർണിങ്ങ് ആ ഇത് എൽ ജിയുടെ കസ്റ്റമർ കെയർ ഓഫീസ് അല്ലേ എറണാകുളത്തെ ആ ഞാനേ കഴിഞ്ഞ ഒരു ഒരാറ് മാസം മുന്നേ ഇതിൻ്റെ ഷോറൂമിൽ നിന്നൊരു ഫ്രിഡ്ജ് എടുത്തിട്ടുണ്ടായേ അപ്പോൾ അതിനൊരു കംപ്ലെയിന്റ് പറയാൻ വേണ്ടി വിളിച്ചതാണ് ആ കംപ്ലെയിന്റ് നമ്മൽ വയ്ക്കുന്നതിനൊന്നും തണുപ്പ് വരുന്നില്ല ഒന്നും അത് വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും പെട്ടെന്ന് ചീത്തയായി പോവുന്നു വെള്ളം വെച്ചിട്ടും ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാവുന്നൊന്നുമില്ല തണുപ്പ് കുറയുന്നത് പോലെ ശബ്ദം അങ്ങനെ പേടിപ്പെടുത്തുന്ന ശബ്ദം ഒന്നും കേൾക്കാറില്ല എന്നാലും ഒരു മോട്ടർ വലിക്കുന്ന പോലത്തെ ഒരു ശബ്ദം കേൾക്കാറുണ്ട് അതെ അതെ ഫ്രീസ് ആവുന്നില്ല നമ്മൾ അത് കൂട്ടിയും കുറച്ചിട്ട് നോക്കിയിട്ടും ഫ്രീസ് ആവുന്നില്ല ആ കൂട്ടുമ്പോൾ മാത്രം ചെറിയൊരു സൗണ്ട് വ്യത്യാസം ഉണ്ട് കേട്ടോ ആണോ ഓക്കെ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് ആറ് മാസം ആറ് മാസം

ഓക്കെ ഓക്കെ രജിസ്റ്റർ ചെയ്യാൻ അപ്പോൾ ആ ഐ പേയിൽ അയച്ചേക്കാം അപ്പോൾ നമ്മുടെ വാറണ്ടി കാർഡിൻറെ ആവശ്യം ഉണ്ടോ ഓക്കെ ഓക്കെ ഇല്ല അല്ലേ അപ്പം എത്ര ദിവസത്തിനുള്ളിൽ വേറെ സർവീസ് വരും ആ ഓക്കെ ഓക്കെ ഓ ഓക്കെ ഓക്കെ താങ്ക് യു കേട്ടോ അതെ ഞാൻ അയച്ചേക്കാം ശരി ഉം